നമ്മുടെ പ്രദേശത്ത് മെയ്നായിട്ട് മലനിരകളാണ് അപ്പോൾ തന്നെ അവിടത്തെ ഭക്ഷണരീതികൾ വളരെ വ്യത്യസ്തമായ ഭക്ഷണരീതികളാണ് നല്ല ടേസ്റ്റായിട്ട് നാടൻ കപ്പേം കറികളുമൊക്കെ കഴിക്കുന്നവരാണ് ഞങ്ങൾ ഇടുക്കിക്കാർ ഒപ്പം തന്നെ വസ്ത്രരീതികളാണ് ചൂടുള്ള സമയത്ത് വളരെ കോട്ടൺ വസ്ത്രങ്ങളും വളരെ അയഞ്ഞ ഡ്രെസ്സുകളുവാണ് ഇടുന്നത് ചൂടിന്റെ സമയത്ത് നല്ല ചൂടാണ് പക്ഷേ മഴക്കാലത്താണെൽ നല്ല തണുപ്പുവാണ് കോടമഞ്ഞും മറ്റും ഉണ്ടാവുമ്പോൾ തന്നെ അത് ശരീരത്തെ അത് ബാധിക്കുന്നതുകൊണ്ടു തന്നെ കമ്പിളി വസ്ത്രങ്ങളൊരുപാട് ഉപയോഗിക്കുന്നുണ്ട് സഞ്ചാരകേന്ദ്രത്തിന്റെ മറ്റു പ്രത്യേകതാന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്ത് നിന്നുമുള്ള ആൾകാർ ഇവിടെ സന്ദർശനത്തിനായിട്ട് വരുന്നുണ്ട് അത് നിങ്ങളുടെ ടൂറിസത്തെ അതുകൊണ്ടന്നെ ഒരുപാട് പേർക്കത് ഉപജീവനത്തിനുള്ള മാർഗ്ഗമാണ് ഒപ്പം തന്നെ മൂന്നാറിലെ തെയിലച്ചെടികളക്കെ ഭയങ്കര പ്രശസ്തമാണ് ഇപ്പോൾ ഗ്രീൻ ടീയുടെ ആ ഒരു പോപ്പുലാരിറ്റി കൊണ്ട് തന്നെ അത് ഒരുപാട് പേർക്ക് മൂന്നാറിലെ ഗ്രീൻ ടീയും മറ്റ് പാനീയങ്ങളക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടം പ്രിയമാണ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി തന്നെയായിട്ട് ആൾക്കാർ വരുന്നുണ്ട്